ഞാൻ അപ്പുറത്തെ വീട്ടിലെ വൈഷ്ണവി ആ ചേച്ചി ഞാൻ കഴിഞ്ഞാഴ്ച്ചയൊക്കെ വന്നായിരുന്നു അവിടെ കടയി ഇല്ലായിരുന്നോ ആ ആ എനിക്ക് കോളേജിൽ അ എനിക്ക് കോളേജിക്കൊണ്ടു പോവാൻ കുറേ സാധനങ്ങൾ വേണമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം വന്നു നോക്കി അപ്പം ഇല്ലായിരുന്നു ആ എന്തായാലും എനിക്ക് വേണ്ടത് ഒരു ജോമെട്ട്രി ബോക്സ്സ് വേണം അ പിന്നേ ഒരു ബണ്ടിൽ പേപ്പറ് വേണം ഏ ഫോർ ഷീറ്റ് വേണം പിന്നെ അ കളർ പെൻസിൽ ക്യാമലിന്റെ മതി ക്യാമലിന്റെ ഉണ്ടാകുമോ ആ ഓക്കെ ഓക്കെ ആ അങ്ങനെയാണെങ്കിൽ ഏ ഫോർ സ്സ് ഏ ഫോർ ഷീറ്റ് ഒരൂ എയ്റ്റി ജീയെമ്മിന്റെയൊക്കെ ഏ ഫോർ ഷീറ്റ് വേണം അത് കാ ആണൊ അറുന്നൂറ് രൂപയോ ഓ അപ്പം ബാക്കിയൊക്കെ റേറ്റ് എത്രയാണ് ആ നാൽപ്പത് അല്ലെ ഉണ്ടായിരുന്നുള്ളൂന്നെ ഉം പിന്നെ അപ്പോൾ വീട്ടിലോട്ട് കൊണ്ട് തരാൻ പറ്റുമോ ആ ഗോപാലനോ അത് ആരാണ് രാമു അല്ലായിരുന്നോ ആണ ഓക്കെ ഓക്കെ ആ അപ്പം ഗോപാലനെ പറഞ്ഞ് വിട്ടാൽ മതി അപ്പം എന്റെ വീട്ടിന്റെ അച്ഛൻ വരുമ്പോഴത്തേക്ക് പൈസ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി അച്ഛൻ തരും ആ ആ ഓക്കെ ഓക്കെ എഴുതി വച്ചിരുന്നാൽ മതി പിന്നേ പിന്നെ വേറെ എന്താണ് ആ ആ ആ ഓക്കെ ഓക്കെ വാട്സപ്പ് നമ്പറൊന്ന് പറഞ്ഞുതരുമോ അ ആ എഴുതുവ എഴുതുവ ഒരു മിൻറ്റെ അ പറയു അ എട്ട് ഓക്കെ അ

പൂജ്യം ആറ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് നാല് ഓക്കെ അ ആ കറക്റ്റാണെന്ന് തോന്നുന്നുണ്ട് ശരിയാണ് ആ ആ ഓക്കെ ഓക്കെ ആ ആ പിന്നേ എന്തെങ്കിലും പുതുതായിട്ട് സാധനം വരുകയാണെങ്കിൽ ഒന്ന് ഇട്ടേക്കുമോ വാട്സപ്പിൽ ആ അതിന്റെ ഫോട്ടോയും കൂടെ ഇട്ടേക്കണെ ഓക്കെ എന്നാൽ ആ ശരി ശരി ശരി